ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം കുറ്റമറ്റതാണ് എന്ന് പറയാൻ നിർവ്വാഹമില്ല ആരോഗ്യസംരക്ഷണ മേഖല ഇന്ന് പൈസ വാങ്ങുവാനായിട്ട് മാത്രം ഉള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് കാശുള്ളവർക്ക് മാത്രമേ വലിയ വലിയ രോഗങ്ങൾക്ക് ചികിത്സിക്കുവാൻ പെട്ടെന്ന് ചികിത്സ നേടാൻ കഴിയൂ എന്നുള്ളത് ഒരു വളരെ ദയനീയമായ അവസ്ഥയാണ് കാരണം നമ്മൾ പാവപ്പെട്ട ഒരാൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് വലിയ പിടിപാടുകളൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല പൊസിഷനിലല്ല നമ്മൾ എങ്കിൽ നമ്മൾ അവിടെ കാഷ്വാലിറ്റീൽ എന്ന എന്ന പേരിൽ നമ്മൾ ചെന്ന് നമ്മളേ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവിടെ കിടക്കേണ്ടി വരികയും പിന്നെ അവരുടെ അവർ അവിടെ നമ്മളുടെ അവസരങ്ങൾ എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴ് മാത്രമേ നമുക്ക് ഡോക്ടറെ കാണാൻ കഴിയുകയും ചെയ്യുന്നുള്ളൂ അതുപോലെത്തന്നെ നമുക്ക് ചുറ്റുമുള്ള ക്ലിനിക്കുകൾ ആയാൽ പോലും അത് ഓരോ ഓരോ ക്ലിനിക്ക്കളും ഇപ്പോഴത്തെ മോഡേൺ സംവിധാനം ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിൽ ഒരു ഒരു ജെനെറൽ വാർഡിൽ നമ്മൾ കിടക്കേണ്ട അവസ്ഥ വന്നാൽ പോലും നമ്മൾക്ക് ഒരു കൂലിവേല ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവെറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ശമ്പളം കൊണ്ടോ നമുക്ക് അവിടെ ചെന്ന് ഒന്ന് സുഖം പ്രാപിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നല്ലയൊരു ചികിത്സ കിട്ടുക എന്നുള്ളത് അതിവിദൂരമാണ് പിന്നെ സർക്കാർ ആശുപത്രികളിൽ എല്ലാ സൗകര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം നമ്മളിൽ ലഭ്യമാവുന്നു എന്നുള്ളത് അവിടുത്തെ അവിടെയും നമ്മൾ നമുക്ക് റക്കമൻഡ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ എവിടെയാണ് എവിടെയാണോ നമ്മൾക്ക് ചികിത്സയ്ക്കായി ചെല്ലേണ്ടത് അവിടെ നമ്മളുടെ നമ്മളുടെ വരുമാനവും നമ്മളുടെ സ്റ്റാറ്റസും അനുസരിച്ചുള്ള ഒരു ഒരു ചികിത്സ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു ദയനീയ മായ അവസ്ഥ കൂടി ഇന്ന് നമ്മൾ ഒക്കെ ജനത അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്